ഫിഷിംഗ് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റായിട്ടുള്ള എൻ്റെ ഒരു ഹോബീസാണ് പക്ഷെ അവിടെയും പല പല വെല്ലുവിളികൾ നേരിടുന്ന ഒരു മേഖലയായിട്ടാണ് എനിക്ക് തോന്നിയത് ഇപ്പോൾ നമ്മുടെ മത്സ്യബന്ധനമൊക്കെ കൂടി വരുമ്പോഴത്തേക്കും അതുകൊണ്ടാണ് പല ഇപ്പോഴും ട്രോളിംഗ് നിരോധനമൊക്കെ ആണെങ്കിലും വരുന്നുണ്ട് മത്സ്യബന്ധനം കൂടുന്നതും ഓവറായിട്ട് മത്സ്യബന്ധനം നടത്തുന്നതും ഒരു തരത്തിൽ ഒരു പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ വരുന്നത് ഇപ്പം ഞങ്ങളുടെ ഇപ്പൊ നെയിബർഹുഡിൽ ഒക്കെയാണെങ്കിൽ തന്നെ വലയിടുമ്പോഴത്തേക്കും കൂടുതലും വരുന്നത് പ്ലാസ്റ്റിക്കുകളും പ്ലാസ്റ്റിക് ബോട്ടിലുകൾ അങ്ങനെയുള്ള നേരത്തെ കമ്പും ഇങ്ങനത്തെയൊക്കെ ആയിരുന്നു പക്ഷേ ഇപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ മാറി ഇപ്പം പ്ലാസ്റ്റിക് ബോട്ടിൽസ് പ്ലാസ്റ്റിക് കവറ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണ് വലയിൽ കുടുങ്ങുന്നത് അപ്പോൾ അതെന്ന് അതെന്ന് പറയുന്നത് പ്ലാസ്റ്റിക് മാലിന്യം അല്ല പ്ലാസ്റ്റിക് വെള്ളത്തിലേക്ക് തള്ളുന്നത് കൂടുതലായിട്ടും കൂടിയിട്ടുണ്ട് എന്നാണ് അതിൻ്റെയൊരു അർത്ഥം അത് സൂചിപ്പിക്കുന്നത് അപ്പോൾ അത് ജലത്തെ മലിനീകരണമാക്കുന്നുണ്ട് അതായത് ജലത്തെ അഴുക്കാക്കുന്നു അപ്പോൾ ഇങ്ങിനെ ഇങ്ങനെ വരുമ്പോഴത്തേക്കും അത് ജലത്തിലുള്ളവർക്കും കരയിൽ ജീവിക്കുന്ന അതായത് നമുക്ക് ആണെങ്കിലും അത് നമ്മുടെ ആരോഗ്യത്തെ വളരെ ബാധിക്കുന്നു ഇപ്പോഴത്തെ ഇപ്പം പല തരത്തിലുള്ള അസുഖങ്ങളാണ് കേട്ടു വരുന്നത് നമ്മൾ കേട്ടിട്ടു പോലുമില്ലാത്ത പലപല അസുഖങ്ങൾ ആൾക്കാരിൽ കണ്ടു വരുന്നു അത് ഈ ജീവിത ശൈലിയുടെയും നമ്മുടെ വെള്ളത്തിൻ്റെയും നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ ശുചിത്വത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ട് വരുന്നതാണ്